ഹലോ ആ ഇത് ഹോസ്പിറ്റലല്ലേ

ഇങ്ങനെ എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു

അപ്പോൾ എന്താ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇല്ല കാണിച്ചിട്ടില്ല ഇല്ല ഇപ്പോൾ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ ആ ചെറുതായിട്ട് ഇന്ന് ഇപ്പം മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നു ജലദോഷം ആ ചെറുതായിട്ട് മൂക്കടപ്പൊക്കെയുണ്ട് ആ കുഴപ്പമില്ല ആ ഓക്കെ

വേറെ ചെറിയ തൊണ്ട വേദനയുണ്ട് ആ ഓക്കെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ അങ്ങനെയെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകുമോ ആ ഓക്കെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്തെങ്കിലും വേണോ ആ ഓക്കെ അപ്പോൾ സർ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക ബുക്ക് ചെയ്തിട്ടേ വരാവുള്ളൂ എന്നുണ്ടോ ബുക്ക് ചെയ്യാതെ തന്നെ പറ്റില്ലേ വെക്കണം അല്ലേ ആ ഓക്കെ ഓക്കെ ആ സർ എപ്പോഴത്തേക്ക് എത്തുകയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അനുസരിച്ച് വരാം അതിനനുസരിച്ച് വരാമായിരുന്നു ആ എന്നാൽ ബുക്ക് ചെയ്തുകൊളളൂ ഞാൻ ആ പേര് എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്

സ്ഥലം പുൽപ്പള്ളി ആ ഏഴ് അല്ലെ ഓക്കെ അപ്പോൾ എപ്പോഴത്തേക്ക് എങ്ങനെ ഞാൻ ഏകദേശം സമയമെപ്പോഴാണ് എപ്പോഴത്തേക്കാണ് എത്തേണ്ടത് മൂന്നരയ്ക്കല്ലേ ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ഞാൻ മൂന്നരയൊക്കെ ആവുമ്പോഴത്തേക്കും എത്താം അപ്പോൾ സാർ അവിടെ ഉണ്ടാവില്ലേ ആ വേറെയെന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ വേറെയെന്തെങ്കിലും ടെസ്റ്റോ അങ്ങനെയെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ആ ഓക്കെ ഓക്കെ കൊണ്ടുവരാം ആ ആയിക്കോട്ടെ